എന്റെ വീട്ടിൽ എന്റെ പൂന്തോട്ടം എന്റെ മുറ്റത്താണ് പിന്നെ ടെറസിന്റെ മുകളിലൊക്കെ പൂന്തോട്ടം ഉണ്ടാക്കിയാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് എപ്പോഴും മുറ്റത്താവുമ്പോൾ എപ്പോഴും എന്താണ് എപ്പോഴും നമുക്ക് അതിലേക്ക് ചെല്ലാം ഒക്കെ ചെയ്യാലോ മുകളിലാവുമ്പോൾ അങ്ങ് കയറി പോയി ഭയങ്കര പണിയാണല്ലോ പിന്നെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് പൂന്തോട്ടം എനിക്കും എന്റെ മക്കൾക്കും ഒക്കെ ഇഷ്ടമാണ് എന്റെ വീട്ടിൽ ഉമ്മാക്ക് നല്ലോണം പൂന്തോട്ടത്തില് നല്ല നല്ല ഒരു ഇതായിരുന്നു പൂന്തോട്ടം നല്ലോണം നോക്കിയിരുന്നു പിന്നെ ഒരു ചെടി കുഴിച്ചിട്ട് കഴിഞ്ഞാല് അതിന്റെ ഇലയും കായും പൂവും വരുന്നതൊക്കെ നല്ല ഇങ്ങനെ എന്നും പോയി നോക്കുമായിരുന്നു എന്നിട്ട് നല്ല സന്തോഷേനു ഇന്നുണ്ടായത് നമ്മൾ കുഴിച്ചിട്ടത് കൊണ്ട് അതേമാതിരി പൂവുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷായിനു അന്നത്തെ ദിവസം പിന്നെ അത് എല്ലാവരോടും പറയുമായിരുന്നു പിന്നെ മുറ്റത്ത് ഒരുപാട് ചെടികളുണ്ട് റോസ് ഉണ്ട് മല്ലിക ഉണ്ട് മുല്ല ഉണ്ട് അങ്ങനെ പലതരം ചെടികളുണ്ട് പുറത്ത് നിന്ന് വാങ്ങിയത് കൊണ്ട് കുഴിച്ചിട്ടതും വീടുകളിൽ ഉള്ളതും എവിടെ പോയാലും ചെടികൾ കണ്ടാൽ ഞാൻ അത് ചോദിച്ച് വാങ്ങി അത് കൊണ്ടു വരും എന്റെ പൂന്തോട്ടത്തിൽ നട്ടു പിടിപ്പിക്കാന് വേണ്ടിയോണ്ട് പിന്നെ നല്ല ഇഷ്ടമായിരുന്നു ചെടികൾ നടുന്നതൊക്കെ നല്ല ഇഷ്ടമുള്ള പരിപാടി ആണ് ഫ്രീ ടൈമ് കിട്ടിയാൽ ഇതിൽ ഉഷാറാക്കി ചെക്ക് ചെയ്ത് പുതിയ ചെടികളൊക്കെ നട്ടു പിടിപ്പിക്കും എവിടെ എങ്കിലും ഉണ്ടെങ്കില് അത് പോയി വാങ്ങി ചോദിച്ചു കൊണ്ട് വരും